നമ്മുടെ ക്രിസ്ത്യൻ സഭകളുടെ സംസ്കാരമെന്ന് പറയുന്നത് പണ്ടു നമ്മൾ കുറേയൊക്കെ നല്ല കഥകൾ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു അതായത് മാർഗംകളി അതായത് ചട്ടയും മുണ്ടും ഉടുത്ത് ഉള്ള ആ ഒരു ആചാരം അതിൻ്റേതായിട്ടുള്ള ഒരു തനതായിട്ടുള്ള ഒരു ശൈലി വരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് വലിയ ഒരു പിന്നെ പണ്ടുകാലത്ത് പിന്നേ മാതാവ് പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ അവർ ചട്ടയും മുണ്ടുടുത്ത് വരുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി അത് കഴിഞ്ഞിട്ട് സാരിയായി സാരിയാണെങ്കിൽ തന്നെയും നമുക്ക് ഒരു ഒരു പിന്നേ അവരെ ഐഡൻ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലായിരുന്നു പക്ഷെ ഇപ്പം അത് മാറിയുള്ള ചുരിദാറൊക്കെ വരുമ്പം ആ തനതായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഒരു നിലനിൽപ്പെന്ന് അതൊരു ഭീഷണിയാണോ എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ആ യുഗത്തിലോട്ട് പോകുന്നത് കാരണം നമ്മുടെ ഭാഷയും സംസ്കാരവും വേഷവിധാനങ്ങളും എല്ലാം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് ഒട്ടുമുക്കാൽ കുട്ടികളും നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉപരി പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും വിദേശരാജ്യങ്ങളിൽ പോകുന്നു അപ്പം അവർക്കും ആ ഒരു കൾച്ചറിലോട്ടുള്ള ആ ഒരു സംസ്കാരത്തിലോട്ട് അവർ ഇഴുകി ചേർന്നു പോവുകയാണ് എന്നാലും നമ്മൾ സംസ്കാരത്തെ നമ്മൾ മാതാപിതാക്കൾ വിചാരിക്കുവാണെങ്കിൽ ആ സംസ്കാരത്തിന് കുറേയൊക്കെ നമ്മുടെ മക്കളെയും നമ്മുടെ ആൾക്കാരെയും ഉൾക്കൊള്ളിപ്പിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും നമ്മുടെ അതിരൂപതയും സഭകളും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ആ ഒരു സംസ്കാരത്തെ ഊന്നൽ കൊടുത്തു കൊണ്ടുള്ള ഒരു പരിപാടികൾ എപ്പോഴും നമ്മുടെ ഇതിൽ നടക്കുന്നുണ്ട് അത് നല്ല ഒരു കാര്യമാണ്